വസ്ത്രങ്ങൾ കഴുകാൻ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ സാധാരണ വെള്ളം സോപ്പ് ഉപയോഗിച്ച് കല്ലിൽ അലക്കി ആണ് കഴുകുന്നത് സാധാരണ പിന്നെ വലിയ കട്ടിയുള്ള തുണികളൊക്കെ ആണെങ്കിൽ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാറുണ്ട് എന്നിരുന്നാലും കൂടുതലായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ നമ്മുടെ കല്ലിൽത്തന്നെ അലക്കുന്ന രീതി തന്നെയാണ് പ്രത്യേകിച്ച് നമ്മളെ പിള്ളേരുടെ സ്കൂൾ യൂണിഫോമൊക്കെ ആണെന്ന് വെച്ചാലും നമ്മൾ കല്ലിലൊക്കെ അല്ലെങ്കിൽ ലൈറ്റ് കളേഴ്സ് ഉള്ള യൂണിഫോം ആയതുകൊണ്ട് തന്നെ നല്ല ചെളിയുണ്ടാവും അപ്പോൾ പിന്നെ നമ്മൾ എന്താ കല്ലേൽതന്നെ അലക്കാറാണ് സാധാരണ ഉപയോഗിക്കാറ് അപ്പം ഇപ്പം രണ്ട് ജോടി യൂണിഫോമുണ്ടെൽ ഒരു ബക്കറ്റ് വെള്ളം എടുക്കുക ആദ്യമേ നമ്മളത് നനച്ച് സോപ്പിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകി നമ്മൾ ആദ്യമേ മുക്കാൻ ഉപയോഗിച്ച വെള്ളത്തിൽ തന്നെ ഒരു തവണ ഊരി പിഴിഞ്ഞതിന് ശേഷം ആ വെള്ളം മാറ്റി അടുത്ത വെള്ളം എടുത്ത് നന്നായിട്ട് സോപ്പ് ഉര ചെയ്യുന്ന സോപ്പ് പോകുന്ന രീതിയിൽ കഴുകി ഉണക്കാനിടുകയാണ് സാധാരണ ചെയ്യാറ് മഴക്കാലമാണെങ്കിൽ നമുക്ക് എന്താ ഉണങ്ങാനൊക്കെ ഇച്ചിരി പാടായിരിക്കും അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ നമ്മൾ കാർ ഷെഡിനകത്ത് അഴയൊക്കെ കെട്ടി ഉണക്കാറുണ്ട് പക്ഷേ നമുക്ക് തലേദിവസം കഴുകിയിട്ട് പിറ്റേ ദിവസം തന്നെ പോകണം എന്നുള്ള അല്ലെങ്കിൽ കൊണ്ടുപോകണമെന്നുള്ള കേസസ് ആണെങ്കിൽ നമ്മൾ ഫാൻ യൂസ് ചെയ്ത് ഉണക്കാറുണ്ട് ഫാൻ യൂസ് ചെയ്ത് ഉണക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കറണ്ട് ബില്ലിൻ്റെ ഒരു പ്രശ്നം ഉണ്ട് കറണ്ട് ബില്ല് കൂടുതലാവും അപ്പം കരണ്ടും ഇല്ല ഭയങ്കര മഴയുമാണ് തുണിയലക്കി നാളെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എന്താണ് പുകയില്ലാത്ത അടുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ അടുപ്പംഭാഗം വൃത്തിയാക്കിയാൽ ഒരു കടലാസ് ഇട്ട് വിരിച്ചാൽ അവിടെയിട്ട് നമുക്ക് സൂപ്പറായിട്ട് തുണി ഉണങ്ങാൻ വേണ്ടി പറ്റും അങ്ങനൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കാരണം പ്രത്യേകിച്ച് കുഞ്ഞുങ്ങടെ യൂണിഫോമ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉണങ്ങിക്കിട്ടണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ചൂട് വേണം അതിനൊന്നാമത് കട്ടിയുള്ള സംഭവമാണ് കരണ്ടും കൂടി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുപ്പിൽ ഈ പുകയില്ലാത്ത അടുപ്പാണെങ്കിൽ അത് ടൈലായിരിക്കുമല്ലോ അപ്പോൾ ഓൾറെഡി അത് കത്ത് തീ കത്തിച്ചിട്ടുള്ളത് കൊണ്ട് ചൂടായി കിടക്കുവായിരിക്കും പക്ഷേ ആ ഒരു രാത്രി മുഴുവൻ ചിലപ്പോൾ നമ്മളത് വിരിച്ചിടുവാണെങ്കിൽ രാവിലെ തന്നെ നമുക്ക് ഉണങ്ങി കിട്ടാറുണ്ട് സാധാരണ പിന്നെ നമ്മൾ ധാരാളം വെള്ളം പാഴാക്കുന്നില്ലെന്ന് അങ്ങനെ ഉറപ്പാക്കാം എന്ന് വിചാരിച്ചാൽ നമുക്ക് വെള്ളം ഉള്ള സമയത്താണെങ്കിൽ നല്ല രീതിയിൽ വെള്ളം ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് തന്നെയാണ് കഴുകാറുള്ളത് പക്ഷേ തീരെ നമുക്ക് വെള്ളം കുറവാണെന്നുള്ള സാഹചര്യമാണെങ്കിൽ എന്താ നമ്മൾ ആദ്യമായിട്ട് വെള്ളം നല്ല തുണി നനയ്ക്കാൻ എടുക്കുന്ന വെള്ളം ഉണ്ടല്ലോ ഫസ്റ്റ് ടൈം നനയ്ക്കാൻ എടുക്കുന്ന വെള്ളം തന്നെ ഫസ്റ്റ് ടൈം അലക്കിയിട്ട് ഒന്നൂരി പിഴിഞ്ഞിട്ട് ആ വെള്ളം വേറെ ചെരുവത്തിലോട്ട് ഒഴിച്ച് വെക്കും എന്നിട്ട് ഈ ഇപ്പം നമ്മൾ ഒന്ന് ഊരി പിഴിഞ്ഞ ആ തുണിയുണ്ടല്ലോ ഒരു ബക്കറ്റ് വെള്ളംകൂടെ എടുത്ത് അതിനകത്ത് ഒന്നും കൂടെ ഒന്നോ ഒന്നൂടെ ഉരി പിഴിയുമ്പോൾ കുറച്ചുംകൂടെ നമുക്ക് തെളിഞ്ഞ വെള്ളം കിട്ടും ആ വെള്ളം മാറ്റി വെക്കും എന്നിട്ട് അടുത്തൊരു ബക്കറ്റ് വെള്ളംകൂടെ എടുത്തിട്ടാണ് നമ്മൾ ഊരിപ്പിഴിഞ്ഞ് അഴയിലിടുന്നത് പിന്നെ നമ്മളെ ആദ്യം മാറ്റി വെച്ചാ വെള്ളം അടുത്ത സെറ്റ് തുണി അലക്കാനയിട്ട് എടുക്കുമ്പോൾ ഫസ്റ്റ് നനയ്ക്കാനായിട്ട് ഉപയോഗിക്കും അങ്ങനെയൊക്കെയാണ് സാധാരണ വെള്ളം തീരെ കുറവുള്ള സമയത്ത് നമ്മൾ ചെയ്യാറ് ഇപ്പം സാധാരണ നമുക്ക് വെള്ളം കൂടുതലുള്ളത് കൊണ്ട് വെള്ളം കുഴപ്പം ഇല്ലാതെ കിട്ടുന്നുള്ളത് കൊണ്ടങ്ങനെ അത്ര നമുക്ക് ലബ്ധിക്കേണ്ടി വരാറില്ല പക്ഷേ വെള്ളമില്ലാതിരുന്ന സാഹചാര്യം നമുക്കുണ്ടായ സമയത്ത് നമ്മൾ വളരെയധികം ലബ്ധിച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ശരിക്കും നമുക്ക് വെള്ളം ഇല്ലാതെ വരുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളിലൊന്ന് തന്നെയാണല്ലോ വെള്ളം അപ്പോൾ പിന്നെ അത് ഉപയോഗിക്കേണ്ടി വരാറുണ്ട്